ഹലോ ജനേഷ് സൂപ്പർമാർക്കറ്റ് ആണോ ആ ഇന്ന് ബുധനാഴ്ച്ച അല്ലേ അപ്പം എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നേ ആ ഓക്കെ

മ് മ് മ് പിന്നെ ഈ അരിക്കൊക്കെ എന്താണ് ഓഫർ ഉള്ളത്

ആ ആ ആണല്ലേ നിങ്ങള അവിടെ ഏതൊക്കെ ദിവസം ആണ് ഓഫർ ഉള്ളത് മ് കാർഡ് എടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഓഫർ കിട്ടുള്ളോ അതോ അല്ലെങ്കിൽ തന്നെ നമുക്ക് അല്ലാണ്ട് വന്ന് മേടിക്കാമോ

നമ്മൾ ആയിരം രൂപേൻ്റെ പുറമേ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര അതായത് എന്തെങ്കിലും ഇതുണ്ടോ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ പഞ്ചസാര അങ്ങനെ ഒക്കെ ആ ആ ആ

അതെ മ് മ് പിന്നെ ഗീ റൈസിനൊക്കെ എങ്ങനെയാണ് റേറ്റ് അറുപത് തൊട്ട് അറുപതിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ലതാണോ അതോ അല്ല കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് വീട്ടിൽ അപ്പം അതിനുവേണ്ടി മേടിക്കാനാണ് അപ്പം നമുക്ക് ഗുണം ഇല്ലാണ്ടായാൽ ആ ഓക്കെ എന്നാൽ ശരി മാം ഞാൻ എന്തൊക്കെയാണ് ഓഫർ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് അങ്ങനെ ആണെങ്കിൽ വൈകുന്നേരം വരാം ആ ഓക്കെ